സർ എന്റെ പേര് എവ്ലിൻ ഞാന് വെളിയനാട് പഞ്ചായത്തിലെ എഴാം വാര്ഡിലാണ് താമസിക്കുന്നത് ഞങ്ങളുടെ വൈദ്യുതി കൺസ്യൂമർ നമ്പർ ഒന്ന് അഞ്ച് എട്ട് ഒമ്പത് നാല് മൂന്ന് രണ്ട് ആണ് ഞങ്ങൾ കഴിഞ്ഞ മൂന്ന് മാസത്തിൽ അടച്ച വൈദ്യുതി ബില്ലിൽ കുറച്ച് പിശകുകളുണ്ടന്ന് ഞങ്ങള് സംശയിക്കുന്നു അപ്പോൾ അതിലെ സംശയം ഞങ്ങൾക്ക് മാറ്റാന് വേണ്ടിയിട്ട് കഴിഞ്ഞ മൂന്ന് മാസത്തിലെ വൈദ്യുതി ബില്ല് അടയ്ക്കല് ചരിത്രത്തിന്റെ അച്ചടിച്ച പകര്പ്പ് ഞങ്ങള്ക്ക് നല്കണമെന്ന് ഞങ്ങള് അഭ്യര്ത്ഥിക്കുന്നു ഞങ്ങൾ അധികം വൈദ്യുതി ഉപയോഗിക്കാറില്ല കാരണം ഞങ്ങൾ എപ്പോഴും വീട്ടിലുണ്ടാകാറില്ല ആകെ ഞങ്ങൾ രാത്രി മാത്രമേ വൈദ്യുതി കുടുതൽ ഉപയോഗിക്കാറുള്ളൂ പകല് സമയത്ത് അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല പകല്സമയത്ത് ഒന്ന് രണ്ട് തവണ ഫാന് കുറച്ച് നേരം ഇടും അല്ലെങ്കില് ലൈറ്റ് കുറച്ച് നേരം ഉപയോഗിക്കും അടുക്കളയിൽ എന്തെങ്കിലും മിക്സിയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കും എന്നല്ലാണ്ട് വേറൊരു രീതിയിലും ഞങ്ങൾ വൈദ്യുതി ഉപയോഗിക്കുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് വന്ന വൈദ്യുതി ബില്ലിലെല്ലാം കൂടുതൽ തുക വരുന്നതായിട്ട് കൂടുതൽ അടക്കേണ്ട തുക വരുന്നതായിട്ട് കാണുന്നു അതുപോലെ ഞങ്ങൾ തുക അടച്ച് കഴിഞ്ഞാലും അതിൽ പിഴ ആയിട്ട് കുറച്ചു തുക കൂടുതൽ അടക്കേണ്ടി വരുന്നതായിട്ട് കാണിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ബില്ലൊന്നു കാണണം എന്നുണ്ട് ഞങ്ങൾക്ക് ആ ബില്ലൊന്ന് തരണം എന്ന് അഭ്യര്ത്ഥിക്കുന്നു